ആ ഞാൻ മെഷീൻ വിവര്ത്തനം പരീക്ഷിച്ചു അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പുകളും കാരണം എൻ്റെ വീട്ടിൽ വരുന്ന ഭായിമാർക്ക് ആസ്സാമീസാണ് അറിയുന്നത് എനിക്ക് മലയാളമാണ് അറിയുന്നത് അന്നേരത്തിനും ഗൂഗിൾ ട്രാൻസ്ലേഷനെ ഉപയോഗിച്ച് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ ആ അതു നല്ല നല്ല അക്യുറസിയായതുകൊണ്ട് അതിൽ തന്നെ ഏറ്റവും എളുപ്പമാണ് കാരണം ഗൂഗിൾ ട്രാന്സ്ലേഷനെന്നു പറയുമ്പോഴത്തേനും നമ്മള് ആസ്സാമീസ് അവര് പറയുന്ന അവർക്ക് അവര് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഏലക്ക എടുക്കാനും അതുപോലെതന്നെ അവര് പണീയുമ്പോഴത്തേനും ഭായിമാർക്ക് ഏറ്റവും എളുപ്പം അവർക്ക് അങ്ങനെ പറഞ്ഞുകൊടുക്കാനാണ് അങ്ങനെ നമ്മള് അതു കൃത്യതയായിരുന്നു നല്ല കൃത്യതയാണ് കാരണം എപ്പോഴും കൃത്യതയോടെ ചെയ്താണ് ഗൂഗിൾ പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത് കാരണം ചില സമയത്ത് ലോങ് യാത്ര പോകുമ്പോഴത്തേനും ചില വഴികൾ മോശമായിരിക്കുന്നതറിയാന് വേണ്ടി ഗൂഗിൾ മാപ്പാണ് ഉയോഗിക്കുന്നത് അതുപോലെ തമിഴ്നാട്ടില് കമ്പംമേടിലോ തമിഴ്നാട്ടിലോ ഇടുക്കിയില്നിന്ന് പോകുമ്പോഴത്തേനും ഏറ്റവും നല്ലത് ഗുഗിൾ മാപ്പാണ് അതുപോലെതന്നെ തേനിക്കും മധുരയ്ക്കും പോകുമ്പോള്ത്തന്നെ ചെറിയ ചെറിയ വഴികളുണ്ട് അതിൽ പോകുമ്പോള്ത്തന്നെ നമുക്ക് നാട് കാണാനും അതുപോലെതന്നെ എല്ലാം മനസ്സിലാക്കാനും പറ്റും അതു പറഞ്ഞുകൊണ്ടാണ് ഗൂഗിൾ മാപ്പെല്ലാം നല്ല കൃത്യതയോടെയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്പിൽ കൂടെ പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ ചില സമയത്ത് അത് കൃത്യതയല്ല കാരണം അത് ഉപയോഗിക്കുന്ന രീതി പോലിരിക്കും അതു മനസ്സിലാക്കുന്ന രീതി പോലിരിക്കും അന്നേരം പറയുമ്പോഴത്തേനും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവരും എല്ലാ എല്ലാവരും അറിഞ്ഞ് അതുപോലെതന്നെ എല്ലാവർക്കും അതു പഠിപ്പിച്ചുകൊടുക്കണം എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് പോയിക്കഴിഞ്ഞാല് ഗൂഗിൾ മാപ്പും വളരെ ഉപകാരമായിരിക്കും കാരണം ഗൂഗിൾ മാപ്പിൻ്റെ ആരോ മനസ്സിലാക്കാനാണ് അതിൻ്റെ ആ ഡയറക്ഷൻ മനസ്സിലാക്കാനാണ് ഏറ്റവും പാട് അതു മനസിലാക്കിക്കഴിയുമ്പോള്ത്തന്നെ എപ്പോഴും എളുപ്പമായിരിക്കും ഗൂഗിൾ മാപ്പില്ക്കൂടെ നമുക്കെവിടെ പോകാനും അതുകൊണ്ട് ഞാൻ പറയുന്നു ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനാണ് ഏറ്റവും എളുപ്പം അതുപോലെ തന്നെ വിവർത്തനം ചെയ്യുമ്പോഴത്തേനും നല്ലപോലെ ആക്കുറസായിട്ട് പറയും പക്ഷെ ചില കാര്യങ്ങൾ നല്ല കൃത്യതയായിട്ടല്ലാ കിട്ടുന്നത് കാരണം അത് മെഷീനാണല്ലോ കാരണം മനുഷ്യൻ്റത്രയും ഇത് നമ്മളുദ്ദേശിക്കുന്ന കാര്യമല്ല അത് അവര് ഉദ്ദേശിക്കുന്നത് അച്ചടി ഭാഷയാണെങ്കി നമ്മള് ഉപയോഗിക്കുന്നത് അച്ചടി ഭാഷയല്ലല്ലോ കാരണം അങ്ങനെയുള്ള വാക്കുകൾക്കു വ്യത്യാസം വരും അതു കാരണം ചില സമയത്ത് ഇതു വ്യത്യാസം വന്നേക്കാം അതുകൊണ്ടാണ് ചില സമയത്ത് കൃത്യമല്ലായിരിക്കും ചില സമയത്ത് കൃത്യമായിരിക്കും ഞാനെന്തായാലും ഉപയോഗിക്കുന്നത് ഗൂഗിൾ മാപ്പും ഗൂഗിൾ ട്രാസ്ലേഷൻ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ചില സമയം നല്ലപോലെ കൃത്യമാണ്